ഹലോ സാർ അല്ലേ ആഹ് ഞാൻ വിളിച്ചത് പിന്നെ ഇപ്പം നമ്മുടെ ജ്വല്ലറിയിൽ ഇപ്പോൾ ഒരുപാട് ഡിസൈൻസ് പഴകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം ഇന്നും ഇന്നലെയും ആയിട്ട് കുറേ കസ്റ്റമർ വന്നിട്ട് പിന്നെ ഡിസൈൻസ് ചോദിക്കുന്നത് അവർക്ക് ചെറിയ ഒരു അര ഗ്രാമിലും ഒരു ഗ്രാമിലുമൊക്കെയുള്ള മാല ചെറിയ ചെയിൻ ഒക്കെയാണ് ഒരു സിമ്പിൾ ചെയിൻ ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് ഗ്രാം കുറവാണെങ്കിലും അവർക്കിപ്പോൾ അതുപോലെയുള്ള മാലകൾ ഒക്കെയാണ് വേണ്ടത് പിന്നെ അതുപോലെ സിമ്പിൾ ഇയറിങ്ങ്സും അതുപോലെ റിങ്ങ് ഒക്കെ സിമ്പിൾ ആയിട്ട് സെറ്റ് ആയിട്ടുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ബ്രേസ്ലെറ്റും റിങ്ങും അതുപോലെ ചെയിൻ പിന്നെ ഇയറിങ്സ് ഒക്കെ സെറ്റ് ആയിട്ടുള്ളതൊക്കെ ആണ് ചോദിക്കുന്നത് അതിവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല നമ്മുടെ ഷോറൂമിൽ അപ്പോൾ നമുക്കിനി പുതിയ ഡിസൈൻസ് കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറിയ

ആ ആ ആ അതുപോലെ ഇന്നലത്തെ കുറേ കസ്റ്റമർ വന്നിട്ട് ഇതു തന്നെയാണ് ചോദിക്കുന്നത് ചെറിയ ഇങ്ങനത്തെ അതുപോലെ ശിവൻ്റെയും അതുപോലെ അവരുടെ ഹിന്ദു പുരാണ കഥ പോലെയുള്ള ഈ ഡിസൈൻസ് ഒക്കെ വരുന്നില്ലേ അവർ ഒരു ചോക്കർ ഒക്കെ പോലെയുള്ള അങ്ങനത്തെയും ഒരുപാട് വന്നിട്ടുണ്ട് അതും പിന്നെ ഗ്രാം കൂടിയതാണ് ഒരു ആ ആ അത് ഒരു എട്ട് പവൻ ഒമ്പത് പവൻറെ ഒക്കെയാണ് വന്ന് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ അതില്ല അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ കസ്റ്റമേഴ്സിനെ മിസ് ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഷോറൂമിൽ ഇപ്പം പണി കുറഞ്ഞ് വര് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ അടുത്തുള്ള ജ്വല്ലറി

ആ ആ ഞാന് അടുത്തുള്ള ജ്വല്ലറികളിലൊക്കെ പോയി നോക്കി ആ ആ ഇപ്പം അവർക്ക് അത് പണിക്കൂലിയൊന്നും കുഴപ്പം ഇല്ലെന്ന് തോന്നുന്നു ഇനി ഇപ്പോൾ പണിക്കൂലി കൂടിയാലും നമുക്ക് ഇപ്പോൾ ഒരു എന്താണ് ഒരു കുറി പോലെ വെച്ചാൽ എന്നാൽ അവർ ഇപ്പോൾ കസ്റ്റമേഴ്സ് ഇങ്ങനെ പൈസ ഇങ്ങനെ ഓരോ മാസം ഇങ്ങനെ തന്നിട്ട് ലാസ്റ്റ് പണിക്കൂലി കുറച്ചിട്ട് നമുക്ക് കൊടുക്കുന്ന ആ അതുപോലെ ഇങ്ങനെ ചോദിച്ച് വന്നു ഇവിടെ കുറി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുപോലെ ഒരു കുറച്ച് ഒരു കുറി പോലെ തുടങ്ങിയാൽ അതും ഒരു പണിക്കൂലി കുറച്ചിട്ട് അത് നമുക്കൊരു നേട്ടമല്ലേ ആ ആ എന്നാൽ പിന്നെ അത് സാർ ഒന്ന് പെട്ടെന്നുതന്നെ നോക്കണം ആ ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് ഒന്ന് ഇട്ട് ഒരു നാളത്തേക്ക് കുറച്ച് കിട്ടുവോ എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുവോ ആ ആ എന്നാൽ ഓക്കെ ആ ആ ഞാൻ ഇത് പറയാനായിട്ടാണ് സാറേ വിളിച്ചത് എന്നാൽ ഓക്കെ